നൃത്തമെന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കലാരൂപമാണ് അത് നന്നായി അവതരിപ്പിച്ചു കാണുന്നത് കാണികൾക്കും ഏറ്റവും ഇഷ്ടമാണ് അത് നമ്മുടെ ഗ്രാമീണ സമൂഹത്തിൽ ഒത്തിരി പ്രാധാന്യമുണ്ട് അതിന് ഒരുപാട് കുട്ടികൾ നൃത്തം ആഭ്യസിക്കും സ്കൂളുകളിൽ തന്നെ നൃത്തം അഭ്യസിക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ തന്നെ മോഹിനിയാട്ടം ഭരതനാട്യം കുച്ചിപ്പുടി പല മേഖലകളിലും കുട്ടികൾ നല്ല രീതിയിൽ മികവ് പ്രകടിപ്പിക്കുന്നുണ്ട് ഇതിനൊക്കെ മത്സരങ്ങൾ വച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കലാതിലകോം കലാപ്രതിഭയൊക്കെ ആകാൻ വേണ്ടി കുട്ടികൾ മത്സരിച്ച് നൃത്തം ആഭിസിക്കുന്നുണ്ട് അത് ഗ്രാമീണ മേഖലയിലായാൽ പോലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കല ആയതുകൊണ്ട് മാതാപിതാക്കളും ടീച്ചേഴ്സും എല്ലാം അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഒരുപാട് മാതാപിതാക്കൾ കുട്ടികളെ നൃത്തം അഭ്യസിപിക്കുന്നതിനായി നൃത്ത വിദ്യാലയങ്ങളിലൊക്കെ കൊണ്ടാക്കാൻ വേണ്ടി ഒക്കെ അവർ മെനക്കെടാറുണ്ട് അതിനൊന്നും അവർ മാതാപിതാക്കൾ മടി വിചാരിക്കാറില്ല സ്കൂളുകളിൽ നൃത്തം അഭ്യസിപിക്കുന്നതിന് അവരെ ആക്ടിവിറ്റി പോലുള്ള പീരീഡുകൾ വച്ച് ടീച്ചേഴ്സിനെ വച്ച് നൃത്തം അഭ്യസിപ്പിക്കാറുണ്ട് ഇതൊക്കെ നൃത്തം എന്ന കലാരൂപത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുപാട് സഹായകരമാകുന്നുണ്ട് കുട്ടികൾ അതിനായി കുട്ടികൾക്കും അതിന് താൽപര്യമാണ് നൃത്തം പഠിക്കാൻ ഒരുപാട് കുട്ടികൾക്ക് താൽപര്യമുള്ള കുട്ടികളുണ്ട് അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ കുട്ടികൾ നൃത്തകല അഭ്യസിക്കുന്നുണ്ട് അത് നല്ല ഒരു കാര്യം തന്നെയാണ് കുട്ടികൾക്കെല്ലാം താൽപര്യമുള്ള മേഖലയായതു കൊണ്ട് ഒരുപാട് കുട്ടികൾ അതിനായി തയ്യാറാകുന്നുണ്ട് പഠിക്കാൻ പോകുന്നതിനും ഒക്കെ അതിനോട് താൽപര്യം കാണിക്കാറുണ്ട് ഏറ്റോം പ്രധാനമായും ഭരതനാട്യം മോഹിനിയാട്ടം അതുപോലുള്ള കലാരൂപമാണ് ക്ലാസിക്കൽ നൃത്തം പിന്നെ അഭ്യസിക്കുന്നവർ കൂടുതലായിട്ടും പഠിക്കുന്നത് അതൊക്കെ സ്റ്റേജിൽ അവതരിപ്പിക്കാനും അരങ്ങേറ്റം നടത്താനും ഒക്കെ കുട്ടികൾക്ക് വളരെയധികം താൽപര്യമാണ് അതിനായി എത്ര പണം ചിലവ് ഉണ്ടായാലും മാതാപിതാക്കളും അതിന് പ്രോത്സാഹനം കൊടുക്കാറുണ്ട് നമ്മുടെ ഇവിടെ ഗ്രാമപ്രദേശങ്ങളിൽ ആയാൽപോലും നൃത്ത സ്കൂളുകളൊക്കെ അടുത്ത സ്ഥലങ്ങളിൽ ഒക്കെത്തന്നെ ഉണ്ട് അവിടൊക്കെ നമ്മുടെ കുട്ടികൾ പോയി നൃത്തം വിദ്യാലയത്തിലെ യൂണിഫോം ഒക്കെ ധരിച്ച് പോകുന്നത് കാണാൻ നല്ല ഒരു

അതിനായിട്ട് നല്ല രീതിയിൽ നമ്മൾക്ക് കുട്ടികളെ ഒരുക്കാം വരുന്ന വരും തലമുറയ്ക്ക് നൃർത്തത്തെക്കുറിച്ചും ഒക്കെ നല്ല ഒരു അറിവ് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ നിന്നും സ്കൂളുകളിൽ നിന്നുമൊക്കെ ഉണ്ടാവുന്നതാണ് നല്ലത് അതിനായിട്ട് അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ഒരു ആക്ടിവിറ്റി പോലുള്ള പീരീഡ് വച്ച് കുട്ടികൾക്ക് അതിനായിട്ട് ഒരു സംവിധാനം ക്രമീകരിച്ച് കൊടുക്കണം സ്കൂൾ ലെവലിൽ മാതാപിതാക്കളാണെങ്കിൽ വീടുകളിൽ ക്ലാസിക്കൽ നൃത്തം പഠിപ്പിക്കുന്നിടത്ത് കൊണ്ടുപോയി അവരെ ആക്കി മേൽക്കനം ശരീരത്തിന് മേൽവഴക്കത്തിനും ഒക്കെ നൃത്തം അഭ്യസിക്കുന്നത് നല്ലതാണ് കുട്ടികൾ ഏറ്റവും നല്ല രീതിയിൽ അവർ അവർക്കൊരു അവരുടെ മൈൻഡ് സെറ്റിന് ഏറ്റവും നല്ല ഒരു കലയാണ് നൃത്തം നമുക്ക് അതിനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കണം അവരെ അതിനായിട്ട് പ്രോത്സാഹിപ്പിച്ചും മത്സരങ്ങളിലൊക്കെ കൊണ്ട് വന്ന് വിജയികളായി വന്ന് കലാതിലകങ്ങളും കലാപ്രതിഭകളും ഒക്കെ ആക്കി മാറ്റിയെടുക്കണം അതിനായിട്ട് നമ്മൾക്കും പരിശ്രമിക്കാം